ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഈ പറഞ്ഞതു പോലെ പരിപാടികൾക്കു വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് നൃത്തം ചെയ്യാറുണ്ട് നമ്മൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് വളരെ അത് എൻജോയ് ചെയ്തിട്ടാണ് എപ്പോഴും ചെയ്യുക അതിൽ എല്ലാവരും ഇൻറ്റെറെസ്റ്റോടെ വരാറാണ് പതിവ് എല്ലാർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട ട്രെൻഡിങ്ങായ എല്ലാർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സോങ്സ് വെച്ച് നല്ല നല്ല പരിപാടികളിൽ എല്ലാവരും ഡാൻസ് കളിക്കാറുണ്ട് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ വീഡിയോസിടാനും ഒരു ട്രെൻഡിങ് സോങ്സിൽ വീഡിയോസിടാനും ചലഞ്ചുകളുടെ ഭാഗവുമായിട്ട് കൂട്ടുകാരായിട്ടും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആയിട്ടും ഡാൻസ് കളിക്കാറും നൃത്തം ചെയ്യാറും ഒക്കെ ഉണ്ട് അവർ പ്രേരിപ്പിക്കാറുണ്ട് അവർക്കും ഇൻറ്റെർസ്റ്റ് ഉള്ളതാണ് നൃത്തം ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് ആയി നൃത്തം ചെയ്യുമ്പോൾ എപ്പോഴും അത് കാണാൻ കുറച്ചു കൂടി മനോഹരമായിരിക്കും നമുക്കൊരുപാടധികം ആൾക്കാരുള്ളതുകൊണ്ടു തന്നെ വളരെ നല്ല സോങ്സും വളരെ നല്ല നല്ല കോമഡിയും ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ പറ്റാറുണ്ട് ഈ പറഞ്ഞതു പോലെ സ്കൂളും കോളേജുകളിലുള്ള പരിപാടികൾ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും കൂട്ടുകാരും എന്തിനേറെ പറയുന്നു ടീച്ചേഴ്സ് വരെ ഇപ്പോൾ ഗ്രൂപ്പായി നൃത്തം ചെയ്യുകയാണ് നമുക്ക് കാണാറുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിലും കാണാറുണ്ട് ഈ പറഞ്ഞതു പോലെ എല്ലാവരും നൃത്തം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കാൻ നമുക്ക് പറ്റും എല്ലാർക്കും എൻജോയ് ഒരേപോലെ എൻജോയ് ചെയ്യാനും ഒരുപാടധികം എഫേർട്ട് എടുക്കേണ്ടി വരാത്ത ഒരു പരിപാടി തന്നെയാണ് നൃത്തം ചെയ്യുകയെന്നുള്ളത് അതുകൊണ്ടു തന്നെ ഗ്രൂപ്പായി നൃത്തം ചെയ്യുന്നതു വളരെ ഭംഗിയും ഒരുപാട് രസവുമുള്ളൊരു കാര്യമാണ്